ഒന്ന് പിന്നെ സ്കൂളിൽ വന്നിട്ട് സ്കൂളിന് പുറത്തുള്ള ട്യൂഷനെ പറ്റി പറയുമ്പോൾ ഇച്ചിരി നല്ല കാര്യമാണ് ഈ ട്യൂഷൻ എടുക്കണത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷനെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് രണ്ടാമത് പഠിക്കാനും അതുപോലെ തന്നെ തന്നെ ചെയ്യാൻ നല്ല ഓർമ്മ ശക്തി കിട്ടാനും അതൊക്കെ നല്ല കാര്യം തന്നാണ് ട്യൂഷനെപ്പോഴും ഇത് നല്ല നല്ല കാര്യം തന്നാ ട്യൂഷന് ഇത് ട്യൂഷൻ വിടുന്നത് പിന്നെ സ്കൂളിൽ ഉച്ച കഴിഞ്ഞാൽ അവർ ഒരു പരിധിയുണ്ടല്ലോ ആ പരിധി വിട്ടാലവർ ഇത്ര ട്യൂഷൻ ഓരോ ക്ലാസ്സിനാച്ച്ഴിഞ്ഞാൽ പത്ത് നാൽപ്പത്തി അഞ്ച് പേരും പിള്ളേരുണ്ടാവും ട്യൂഷന് പോവാന്നച്ച്ഴിഞ്ഞാ അത് ഓരോ സെൻറ്ററ് വച്ച് ഞാൻ ട്യൂഷൻ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് സാവധാനം എല്ലാം നോക്കി നമുക്ക് പഠിക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകാനും നമുക്ക് ഒരു നല്ലൊരു ആത്മധൈര്യം കിട്ടും അതുകൊണ്ടാണ് ട്യൂഷന് ഏറ്റോം നല്ല ഗുണം ചെയ്യണത് പിന്നെ എൻ്റെ ഓർമ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ട്യൂഷന് വിടാറുണ്ട് ആ ട്യൂഷൻ വിടേണ്ട അതിനുള്ള ഗുണമുണ്ട് അതുപോലെ തന്നെ അദ്ധ്യാപകർക്കും നല്ലൊരു ഇതാണ് താല്പര്യമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കും ഒരിതാണ് കാരണാന്മാർക്ക് ഇത്തിരി റിസ്ക് കുറയെം ചെയ്യും പിന്നെ റിസ്ക് കുറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുംകൂടി അവരെ പ്രോത്സാഹിപ്പിക്കണം ആണ്ടെ ട്യൂഷന് വിട്ടുന്ന് വിചാരിച്ചിട്ട് അധ്യാപകമാരെ ഇത് അധ്യാപകമാരെ ന്ന് പറഞ്ഞ ഇതിനകത്തേക്ക് വിടരുത് അവർക്ക് അവർക്ക് നമ്മുടെ പിള്ളേരെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നാണ് അപ്പം നമ്മൾ പിള്ളേർ ട്യൂഷന് വിടന്നച്ച്ഴിഞ്ഞാ ആ പിള്ളേർ പഠിക്കണുണ്ടോ അതിനെ പറ്റി എന്താ വേണ്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ അതാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാണ്ട് വെറുതേ നമ്മൾ ട്യൂഷന് വിട്ടാൽ അവൻ ട്യൂഷന് തന്നെയാണോ പോണത് എന്നുള്ള കാര്യം നമ്മൾ നമ്മൾ നോക്കണം അതറിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എന്നതൊക്കെയാണ് ട്യൂഷൻ പഠിപ്പിച്ചത് അതിനെ പറ്റി നമ്മൾ രണ്ടാ നമ്മൾ നമ്മളോടയും ഒന്ന് പ്രോത്സാഹിപ്പിക്കാണെങ്കിൽ ഒരു ക്വസ്റ്റയനെഴുതി നമ്മൾ ചെയ്യുന്നത് ഒക്കെ ചെയ്യണം ഒരു ട്യൂഷൻ മാസ്റ്ററെ മാത്രം അല്ലെങ്കിൽ ഉസ്കൂളിലെ അധ്യാപകരെ മാത്രം നമ്മൾ അവരെ അവരെ തലേ കെട്ടി വെക്കരുത് കാര്യം നമ്മുടെ പിള്ളേരാണ് നമ്മുടെ പിള്ളേരന്ന്ച്ച്ഴിഞ്ഞാ നമ്മൾ പരമാവധി നമ്മൾ മുന്നോട്ട് പോകണം എങ്കിൽ ഏറ്റോം ബെറ്റർ അതായിരിക്കും അപ്പം അതിൻ്റെ പേരിൽ ഈ ട്യൂഷന് വിടുന്നത് തന്നെ എൻ്റെ ഒരു നല്ല അഭിപ്രായം പിന്നെ അതുകൊണ്ട്ന്ന്ച്ച്ഴിഞ്ഞാ ശരിക്കും അത് ഒരേ സ്ഥലവും അത് ട്യൂഷനന്ന്ച്ച്ഴിഞ്ഞാ അവർ എടുക്കാച്ച്ഴിഞ്ഞാ എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാൻ സഹായിക്കാം കാരണെന്നാന്ന്ച്ച്ഴിഞ്ഞാ ഇപ്പം ജില്ലയിലെ എന്താ നടത്തണ അല്ലെങ്കിൽ പുറം സൈഡിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്ത അത് ട്യൂഷൻ മാസ്റ്റർക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ അപ്പം പുള്ളിക്കാർ ഒരു എക്സാമ്പിളായിട്ട് കുറെ പറഞ്ഞ് പിള്ളാരെ മനസ്സിലാക്കി കൊടുക്കും അത് പിന്നെ എന്തെല്ലാം ഈ

വിദ്യാഭ്യസം മാത്രം കിട്ടീട്ട് എന്താ കാര്യം അത് നന്മ ചെയ്യാനും അതിനൊക്കുള്ളൊരു കഴിവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ട്യൂഷൻ സാർമാർക്ക് സാധിക്കും പിന്നെ സ്കൂളില്ന്നച്ച ഒരു അങ്ങനെ എല്ലാം പിള്ളേരും മുമ്പിൽ വച്ചിങ്ങനെ എല്ലാവരും സാർമാർക്ക് നോട്ടം എത്തിന്ന് വരില്ല കാരണന്നച്ച ഒരു ക്ലാസല്ലല്ലോ പല ക്ലാസ്സാണല്ലോ ഉസ്കൂളിലത് പല ക്ലാസാണല്ലോ അപ്പം ഇവടെന്ന്ച്ചഴിഞ്ഞാ ട്യൂഷൻ സണ്ടെഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് പേർ ഉണ്ടായാലും അവരെ എല്ലാവരേം നോക്കാനുള്ള ഇത് സാർമാർക്ക് കറക്റ്റായിട്ടറിയാം പിന്നെ അവർ തന്നെ അവരെ പഠിക്കുന്ന ഓരോ വേറവേഴ്സും അതിൻ്റെ പ്രത്യേകം ഗ്രാമറും അതെല്ലാകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെന്നൂടെ ഇതൊരു പരിക്ഷക്ക് ഇര് അപ്പം മുന്നോട്ട് പോകാനും നല്ലൊരു ആത്മധൈര്യോം ട്യൂഷൻ സാർമാരും അങ്ങനെ പറഞ്ഞ് കൊടുക്കും ആണ് ഏറ്റോം അങ്ങനെ ട്യൂഷനെന്നൊള്ള ഒരു ഗുണം ഗുണം ചെയ്യണത് പിന്നെ സ്കൂളാച്ചഴിഞ്ഞാൽ ഈ സാറ്മ്മാർ സാറ്മാർ പഠിപ്പിക്കുക പഠിപ്പിക്കാൻ ഉണ്ടെങ്കിലും അവർക്ക് അവർക്കും അവരേതായ കുറച്ച് മുത്തരാതിത്തങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അവരെ അപ്പം കുറ്റപ്പെടുത്തരുത് കാരണന്ന്ച്ച്ഴിഞ്ഞാൽ ഈ പിള്ളേർ എന്തെല്ലാം ചെയ്യണുണ്ടോ ആരൊക്കെ പോണ് എവിടൊക്കെ പോണ് അതഴിഞ്ഞാ അവർ നാല് മണിക്ക് ഒരു പത്ത് മണിക്ക് സ്കൂളിൽ വന്ന കഴിഞ്ഞാൽ നാല് മണി ആയാലാണ് ഇവർ ക്ലാസ് വിടണത് അപ്പം അങ്ങനെവച്ച് പറഞ്ഞ അതെവിടൊക്കെ പോണന്നൊള്ള കാര്യം ഇത് സാർന്മാർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ ട്യൂഷന് വേണങ്കിൽ ആ ട്യൂഷന് കറക്റ്റയിട്ട് സമയം വെച്ച് അവർ കറക്റ്റായിട്ട് അവർ വരെ ചെയ്യും ആ വന്നില്ലെങ്കിൽ ആ ട്യൂഷൻ സാറ് വീട്ടിലേക്ക് വരെയോ അല്ലെങ്കിൽ എന്താ കുട്ടി വരാത്തത് എന്നുള്ള കാര്യം വന്ന് അന്വേഷിക്കാനും അവർക്ക് ഒരു ഉത്സാഹോണ്ടാവും അപ്പം അതിൻ്റെ പേരിൽ നല്ല കാര്യമാണ് ഈ ട്യൂഷന് പോകണത് പഠിപ്പിക്കുക പഠിക്കാനും നല്ല നല്ല മാർക്ക് കിട്ടാനും എല്ലാ എല്ലാം കൊണ്ടും നല്ല കാര്യം തന്നെ ആണ് ഈ ട്യൂഷ ട്യൂഷന് പോകാനുള്ള കാരണം അല്ല എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ട്യൂഷൻന്ന് എടുക്കുന്ന ഏറ്റോം നല്ല കാര്യം കാര്യം തന്നെയാണ് അപ്പം എൻ്റെ പരമാവധി പിള്ളേർ ഈ ട്യൂഷൻ വിടുന്നാണ് ഞാൻ എൻ്റെ എന്റെ ഒരു ആഗ്രഹം അഭിപ്രായം പറയാനുള്ളത് പിന്നെ ഈ ട്യൂഷൻ മാസ്റ്റർടെ പരമാവധി സാധാരണ ഒരു പൈസ ഇതിൽ കുറവാണെന്ന് പറഞ്ഞാൽ ടുൂഷൻ മാസ്റ്ററ് ഒരു കാരണവശാലും ഒരു കുട്ടികളേം അങ്ങനെ പറ്റില്ലാന്ന് പറയില്ല അപ്പോൾ നല്ല വിദ്യാഭ്യാസം വേണം എങ്കിൽ ട്യൂഷൻ നല്ല എടുത്ത് അല്ലെങ്കിൽ ട്യൂഷൻ എടുത്ത് നല്ല കാര്യങ്ങളൊക്കെ നടത്താനുള്ള കഴിവ് അവർക്ക് അവരെ കാണിക്കുക നല്ല മാർഗ്ഗങ്ങളും അവർ ട്യൂഷനിലൊക്കെ പറഞ്ഞു കൊടുക്കേം ചെയ്യും അതിന് അതിനവരെ പ്രോത്സാഹിപ്പിക്കും ഇന്ന പരീക്ഷയ്ക്ക് ശ്രദ്ധയോടെ പഠിക്കണം ഇത്ര മാർക്ക് കിട്ടും അവന് സ്കോളർഷിപ്പ് കിട്ടുവോന്നോ ഇതൊക്കെ പറഞ്ഞ് പിള്ളേരൊന്ന് പ്രോത്സാഹപ്പിക്കുവാണേൽ പിള്ളേർക്ക് താല്പര്യമായിരിക്കും അതല്ല നമ്മൾ ഈ കടുംവെട്ട് ഒരു പിടത്തം പിടിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് ഒരു എല്ലാ പിള്ളേരും സ്ട്രോങ്ങായിട്ട് പിടിക്കുന്നല്ലാ പറയണത് പിള്ളേർക്ക് ചെറിയൊരു അഴിവൊടുക്കണം അഴിവ് കൊടുത്താൽ അഴിവെന്ന്ച്ചഴിഞ്ഞാൽ ഒരു വിട്ട് വിഴ്ച്ച പോലെ അത് ട്യൂഷൻ മാസ്റ്റർമാരങ്ങനെ ചെയ്യും അതുപോലെ ഒരു ഹോബിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്നഴിഞ്ഞാൽ ട്യൂഷൻ പോകുമ്പം അങ്ങനൊരു ഗുണങ്ങൾ ഗുണം കൂടി ഉണ്ട് ഓരോ തമാശേം പറഞ്ഞ് ക്ലാസ് എടുക്കണതും നമ്മൾ അറിയില്ല ക്ലാസിൽ എന്നാ ശ്രദ്ധാ നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് അതിനുള്ള പോകാനുള്ള ഒരു താല്പര്യോണ്ടാവും അത്പോലെ തന്നെ സ്കൂളിൽ വന്ന ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനും നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ഒക്കെ ഉണ്ട് ട്യൂഷന് കാര്യത്തിൽ പറയാണെങ്കിൽ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പറയാണെങ്കിൽ ട്യൂഷൻന്ന് പറഞ്ഞ സാധനം നല്ല നല്ല സാധനം ആണ് അതൊക്കെയാണ് നമ്മുടെ മുന്നോട്ട് ട്യൂഷൻ എപ്പോഴും നല്ല കാര്യം തന്നാണ് അതിന് ഒരാൾക്കും അതിനത് തെറ്റിധാരണ ഒരാളും അതിനെ പറ്റി കുറ്റപ്പെടുത്തില്ല പരമാവധി ട്യൂഷൻ പിള്ളേരെ വിടണം അത് പിള്ളേർക്ക് നല്ല പ്രോത്സാഹം കൊടുക്കണം കാരണം അവർ പ്രോത്സാഹനം നല്ല പഠിക്കേം ചെയ്യും അത് നല്ല മാർക്കും കിട്ടുകയും ചെയ്യും നല്ല ഭാവിക്കും നല്ല നല്ല ആളായിട്ട് ഞാൻ വരുകയും ചെയ്യും അതൊക്കെയാണ് ട്യൂഷൻലൊള്ള ഗുണം ഓക്കെ